ഹലോ ഓലയല്ലേ ഓക്കെ ഇവിടെ റെന്റിനു വണ്ടി കൊടുക്കുന്നുണ്ടോ വാടകക്കാർ ഉണ്ട് അല്ലേ നമുക്കൊരു ഓഫ് റോഡൊക്കെ കയറാൻ പറ്റിയ വണ്ടിയുണ്ടോ ഓക്കേ ഏതാ ബൊലേറൊയാണോ ഉള്ളത് അല്ല അല്ല ഥാർ ഉണ്ടല്ലേ ഓക്കെ ആ പിന്നെ അതേപോലെത്തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഓഫ് റോഡിങ്ങിനു പോകണം അതുപോലെ ഒരു കിലോമീറ്ററിലേക്ക് എത്രയാണ് റേറ്റ് വരുന്നത് അയ്യായിരം റുപ്പിയ അല്ലേ ഡ്രൈവർ വേണ്ട ഡ്രൈവർ വേണ്ട ഓക്കേ ആ വണ്ടിക്കൊന്നും പറ്റില്ല വണ്ടിക്കെന്തെങ്കിലും പറ്റിയാലല്ലേ ഒക്കെ ഒക്കെ അതേപോലെത്തന്നെ നമ്മൾ പോകുന്നത് തൃശ്ശൂർ അങ്ങനെ പോകാനാണ് തൃശ്ശൂർ ഊട്ടി ആ വഴി പോകാനുണ്ട് ആ അവിടെയിങ്ങനെ പോയിട്ട് വരാനാണ് പിന്നെ വയനാട്ടിലും പോകണം അങ്ങനെയാണ് ഒരു ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പ് വണ്ടി ഓക്കെ അപ്പോൾ മൊത്തം എത്ര വരും റേറ്റ് ഓ ഓ ഓക്കെ ഓക്കെ അതുപോലെത്തന്നെ ഓഫ് റോഡൊക്കെ കയറുമല്ലേ വണ്ടി വണ്ടി എ സിയാണോ ഞാൻ ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ഓക്കെ ഓക്കെ മറ്റന്നാളെത്തേക്കാണ് വേണ്ടത് ഞാൻ ഈ നമ്പറിൽ കോൾ ചെയ്യാം